പരമ്പരാഗതമായ കലകളാണ് തിരുവാതിര അങ്ങനെയുള്ളത് തിരുവാതിര നമ്മൾ ഇപ്പോഴും ആൾക്കാരെ ഇപ്പോൾ തുടർച്ചയായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പത്തും പന്ത്രണ്ടും അതിൽ കൂടൂതല് അംഗങ്ങളാണ് തിരുവാതിര അത് പരമ്പരാഗതമായിട്ടുള്ള കളി കളികളാണ് പിന്നെ ഇപ്പം നമുക്ക് പുതുതായിട്ടുള്ളത് കൈകൊട്ടിക്കളിയാണ് കൈകൊട്ടിക്കളി ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങള് തുടർച്ചയായി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പരിപാടിക്ക് അമ്പലങ്ങളിൽ ഉത്സവങ്ങളും ഓരോ പരിപാടിക്കൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങള് പത്തും പന്ത്രണ്ടും പേരാണ് ഇപ്പം കളി കളിക്കാറുള്ളത് പിന്നെ തനത് കലാരൂപം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ തെയ്യം അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഉത്സവ സമയങ്ങളിൽ നമ്മുടെ അമ്പലങ്ങളിൽ ഉത്സവത്തിന് കരയാട്ടം പിറവിയാട്ടം പിന്നെ എന്നാ അങ്ങനെയുള്ള ഗരുഡൻ അങ്ങനെയുള്ള കലാരൂപങ്ങൾ എല്ലാം അതിനകത്ത് എഴുന്നള്ളി അമ്പലത്തില് ഉത്സവത്തിന് ഇത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് മേളത്തിൻ്റെ കൂടെ കലാരൂപങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ട് കലാരൂപം ഇത് നടത്താറുണ്ട് ഇവിടെ പരമ്പരാഗതമായത് തിരുവാതിര ഇപ്പോഴും നടത്തുന്ന തുടർന്നു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അംഗങ്ങള് അത് പഠിക്കുകയും അത് ഇപ്പോൾ കളിക്കാൻ അതിനോട് താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി അംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്